അതായത് ഇപ്പോഴത്തെ സമൂഹത്തിൽ പൊതുവേ ആളുകൾ അറിയുന്നത് സമ്മാനം നേടിയെന്നും അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഒക്കെ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് സോഷ്യൽ മീഡിയ ഇതിന് ഒരൂ നല്ല രീതിയിലുള്ള പ്രാധാന്യം നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയകൾ ഇല്ലെങ്കിൽ ഇത്രയും ആളുകളിലേക്ക് പെട്ടന്ന് കാര്യങ്ങൾ അതായത് ഈ വാർത്തകളൊക്കെ എത്തിക്കാൻ സാധിക്കുന്നതല്ല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് യൂട്യൂബ് എന്നിങ്ങനെയുള്ള പല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് കാര്യങ്ങളൊക്കെ ആളുകൾ ആളുകൾക്ക് പെട്ടന്നറിയാൻ സാധിക്കുന്നത് അവർക്ക് അവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അറിയക്കാം അറിയിക്കാവുന്നതുമാണ് സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇത്ര പെട്ടന്ന് ആളുകളിലേക്ക് ഈ വാർത്തകളും കാര്യങ്ങളും ഒന്നും എത്തിക്കാൻ സാധിക്കുന്നതല്ല കായിക പ്രേമികൾക്ക് എത്രയും പെട്ടന്ന് കാര്യങ്ങളുടെ ഒരു അറിവുകളും കാര്യങ്ങളുമെല്ലാം എത്തണമെങ്കിൽ കാര്യങ്ങളൊക്കെ എത്തിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെ വേണം പെട്ടെന്നുള്ള വാർത്തകളൊക്കെ അതി പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കുവാനും കാര്യങ്ങൾ കൃത്യമായി തെറ്റുകളൊന്നും കൂടാതെ അറിയിക്കാനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആളുകൾ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ചെറിയ രീതിക്കുള്ള തുകകൾ ആളുകളുടെ അടുത്തുനിന്ന് വാങ്ങുന്നുമുണ്ട് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ പൈസയൊന്നും നൽകേണ്ടതില്ല ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയകളുടെ കാര്യങ്ങൾ